ഹലോ ഭാരത് ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫീസ് അല്ലേ ആ ഞാൻ പുതിയതായി താമസം മാറിയ പുതിയ ഇവിടുത്തെ വീട്ടിലേക്ക് ഒരു ഗ്യാസ് കണക്ഷൻ ആവശ്യം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പം ഇവിടെ ഗ്യാസില്ല അപ്പം വിറകടുപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഇസി കുക്കും ഉണ്ട് എലക്ട്രിക്ക് അതാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കൊരു ഒരു ഗ്യാസ് ഗ്യാസ് സ്റ്റവും ഉണ്ട് പക്ഷേ അതിലേക്കുള്ള ഗ്യാസ് സിലിണ്ടർ അതേപോലെക്ക് ഗ്യാസ് കണക്ഷനും വേണമായിരുന്നു അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഗ്യാസ് സിലിണ്ടറിൻ്റെ കണക്ഷന് പേയ്മെൻറ് വരുന്നത് ആയിരത്തി ഇരുന്നൂറിലൊക്കെ ഒതുങ്ങുന്നുണ്ടാവില്ലേ പുതിയ കണക്ഷൻ എടുക്കാൻ അപ്പം ഒരു സിലിണ്ടറും ഒന്ന് രണ്ട് സിലിണ്ടറും ആദ്യം ആദ്യം ആയതുകൊണ്ട് ഫ്രീയല്ലേ ആ അപ്പോൾ ആദ്യം ഒരു രണ്ട് സിലിണ്ടറ് ആയിക്കോട്ടെ പിന്നീട് നമ്മൾ പിന്നീട് ആവശ്യാനുസരണം ബുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് എന്താണ് ആ ഡെലിവറിക്ക് അഡ്രസ്സ് വേണ്ടി വരില്ലേ എൻ്റെ അഡ്രസ്സ് വരുന്നത് പുഴിയോട്ടത്ത് ഹൗസ് പാലത്തറ പി യോ വെഞ്ഞാറമൂട് കയ്യകര പിന്നെ ഇതാണ് എൻ്റെ അഡ്രസ്സ് വരുന്നത് അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് എത്ര ദിവസം എടുക്കും ഇത് ഡെലിവറി ചെയ്യാൻ പിന്നെ അതേപോലെ ഇനി എന്തെങ്കിലും നമ്മുടെ ഡാറ്റ ആവശ്യമായിട്ടുണ്ടോ പുതിയ കണക്ഷൻ എടുക്കാൻ ഓക്കെ താങ്ക്സ്